ഹലോ ഞങ്ങളിന്ന് രാവിലെ ഒമ്പത് മണിക്ക് പോകാനായിട്ട് ഒരു വണ്ടി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ടാക്സി പഷേ ഇതുവരെ വണ്ടി ഇവിടെ വന്നിട്ടില്ല ഞങ്ങൾക്ക് എയര്പ്പോട്ട് പോവാനാണ് ഞങ്ങൾ വണ്ടി ബുക്ക് ചെയ്തത് ഒമ്പത് പോയി ഇപ്പോൾ ഒമ്പതേ കാല് ആയി ഇതിലിക്കൂടുതൽ ഒന്നും ഞങ്ങൾക്ക് വേയ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല കാരണം ഞങ്ങൾക്ക് ഫ്ലൈറ്റ് പിടിക്കാനുള്ളതാണ് ഞങ്ങളുടെ സമയത്തിന് അവിടെ ചെന്നാലേ ഞങ്ങൾക്ക് ആ ഫ്ലൈറ്റ് കിട്ടത്തുള്ളൂ അതുകൊണ്ട് നിങ്ങൾ എന്തുകൊണ്ട് ഈ വണ്ടി ലേയ്റ്റ് ആവുന്നത് ഞങ്ങൾ പ്രത്യേകം പറഞ്ഞതാ ഇന്നലെ വൈകിട്ടുംകൂടെ ഞാന് വിളിച്ച് പറഞ്ഞതാണ് ഞങ്ങൾക്ക് രാവിലെ ഒമ്പത് മണിക്ക് ഇവിടുന്ന് ഇറങ്ങണം എന്നുള്ളത് കാരണം നമ്മൾ ഇത്രയും ദൂരം പോവുമ്പത്തേക്കിനും റോഡിൽ പോവുന്ന വഴിക്ക് ഒരു ബ്ലോക്കോ എന്തെങ്കിലും ഉണ്ടായാല് നമുക്ക് ആ സമയം കവർ ചെയ്ത് പോകാനാണ് പത്ത് മിനിറ്റ് നേരത്തേ ഇറങ്ങണം എന്ന് പറഞ്ഞത് അത്പൊണക്ക് തന്നെ ആദ്യമായിട്ട് യാത്ര ചെയ്യുന്നത് ആയതുകൊണ്ട് അവിടെ ഇത്ര മണിക്ക് മുമ്പേ റിപ്പോട്ട് ചെയ്യണം നാല് മണിക്കൂർ മുമ്പെങ്കിലും അവിടെ റിപ്പോട്ട് ചെയ്യണം പിന്നെ പോകുന്ന വഴിക്ക് കൊച്ച് പിള്ളേർ ഉള്ളതാണ് എന്തെങ്കിലും ഫുഡ്ഡ് കഴിക്കാനൊക്കെ വണ്ടി നിര്ത്തുവോ വല്ലതും ഒക്കെ വേണ്ടി വരും അതുകൊണ്ട് ഒക്കെയാണ് ഞങ്ങൾ നേരത്തേ പറഞ്ഞത് നേരത്തേ വരണം ഞങ്ങൾക്ക് ഇവിടുന്ന് നേരത്തേ ഇറങ്ങണം എന്ന് പക്ഷേ നിങ്ങൾ ബുക്ക് ചെയ്ത വണ്ടി ഇത് വരെ വന്നിട്ടില്ല ഞങ്ങൾക്ക് സ്വന്തമായിട്ട് വണ്ടിയുണ്ട് വണ്ടിയിൽ ഞങ്ങൾക്ക് ലഗേജ് ഒക്കെ ഇച്ചിരി കൂടുതൽ ആയത് കൊണ്ടാണ് ഞങ്ങൾ പുറത്തുനിന്ന് ഒരു വണ്ടി വിളിച്ചത് ഞങ്ങൾ അഡ്വാന്സ്സ് വരെ തന്നിട്ടിരിക്കുന്നവരാണ് അപ്പം നിങ്ങൾ ആ ഉത്തരവാദിത്തം എന്തുകൊണ്ട് ചെയ്യുന്നില്ല ഞങ്ങൾക്ക് പോവേണ്ട സമയത്തിന് വണ്ടി കിട്ടേണ്ടേ നമ്മളൊരു കാര്യം നേരത്തേ അത് വിളിച്ച് നിങ്ങളോട് നേരത്തെ ബുക്ക് ചെയ്തപ്പഴേ ഞങ്ങൾ പറഞ്ഞിരുന്നതാണ് ഞങ്ങൾക്ക് നേരത്തേ പോകേണ്ടതാണ് അതനുസരിച്ച് ഞങ്ങൾക്ക് വണ്ടി തരണമെന്ന് പക്ഷേ നിങ്ങളുടെ വണ്ടിയോ ഡ്രൈവറോ ഇത് വരെ ഇവിടെ എത്തിയിട്ടില്ല ഞങ്ങൾക്ക് അത്യാവശ്യമാണ് പോവുക എന്നുള്ളത് അതുകൊണ്ട് നിങ്ങൾ വരുമോ ഇല്ലയോ എന്നതാന്നാ നിങ്ങൾ തന്നെ ഡ്രൈവറേ വിളിച്ച് അന്വേഷിക്കുക എന്ത് കൊണ്ടാണ് നിങ്ങളുടെ വണ്ടി വരാത്തത് ഡ്രൈവര്ക്ക് എന്തെങ്കിലും പ്രശ്നമാണോ ഇനി വണ്ടിക്ക് എന്തെങ്കിലും കമ്പ്ലൈൻറ്റ് ആണോ എന്താ സംഭവിച്ചത് എന്ന് ഒന്ന് അന്വേഷിക്കുക എന്നിട്ട് ഞങ്ങളെ വിവരം അറിയിക്കുക ഞങ്ങൾക്ക് ഏതായാലും പോയേ പറ്റത്തുള്ളൂ അതുകൊണ്ട് ഞങ്ങൾ ഒരു അഞ്ച് മിനിറ്റൂടെ വേയ്റ്റ് ചെയ്യാം നിങ്ങളുടെ കോളിന് വേണ്ടി അതിൽക്കൂടുതൽ ഞങ്ങൾക്ക് വേയ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് ഇവിടുന്ന് പോയേ പറ്റത്തുള്ളൂ ഞങ്ങൾ ഇല്ലെങ്കിൽ ഞങ്ങളുടെ വണ്ടിയോ അല്ലെങ്കിൽ വേറെ വണ്ടി വിളിച്ചോ ഞങ്ങൾ പോകും അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഡ്രൈവറേ വിളിച്ച് അന്വേഷിക്ക് എന്തുകൊണ്ടാ നിങ്ങളുടെ വണ്ടി ലേയ്റ്റ് ആവുന്നത് നിങ്ങളുടെ ഇനി വണ്ടിക്ക് എന്തെങ്കിലും തകരാറാണോ ഇനി ടയറ് പഞ്ചർ ആകുമോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നമാണോ എന്താണെന്ന് നിങ്ങൾ അന്വേഷിക്കുക ഇനിയിപ്പം നിങ്ങളുടെ വണ്ടിയിൽ ഞങ്ങൾക്ക് പോകാൻ പറ്റത്തില്ല പറ്റാതെ അത് ക്യാന്സൽ ആക്കേണ്ട വന്നാലും ഞങ്ങൾ തന്ന അഡ്വാന്സ്സ് ഞങ്ങൾക്ക് തിരിച്ച് തരണം കാരണം ഞങ്ങളായിട്ടല്ല നിങ്ങളുടെ വണ്ടിക്ക് ഇത് വന്നത് നിങ്ങളുടെ വണ്ടി ലേയ്റ്റ് ആയി ഞങ്ങൾക്ക് സമയത്തിന് കിട്ടായിക വന്നത് കൊണ്ടാണ് ഞങ്ങൾക്ക് ഇപ്പം പോകാൻ പറ്റാതെ വന്നിരിക്കുന്നത് ഞങ്ങൾ ക്യാന്സല് ചെയ്യുന്നതല്ല നിങ്ങളുടെ വണ്ടി സമയത്തിന് എത്താത്തത് കൊണ്ട് ഞങ്ങൾക്ക് വേറെ വണ്ടി പിടിച്ച് പോവേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങളുടെ വണ്ടി ഡ്രൈവറ് ആരാ വരുന്നത് എന്ന് അത് അന്വേഷിക്കുക എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇത്രയും നേരമായിട്ട് വണ്ടി കിട്ടാത്തത് അല്ലെങ്കിൽ എന്ത്കൊണ്ടാണ് നിങ്ങളുടെ വണ്ടി വരാന് താമസിക്കുന്നത് എന്നുള്ളത് അന്വേഷിച്ചിട്ട് പറയുക കാരണം ഞങ്ങൾക്ക് പോകണം ഞങ്ങൾക്ക് ഇത്ര മണിക്ക് അവിടെ റിപ്പോട്ട് ചെയ്യണം ഞങ്ങൾക്ക് ആ ഫ്ലൈറ്റേ കയറി പോകേണ്ടതാണ് അതുകൊണ്ട് കൊച്ച് പില്ലേർ ഒക്കെ ഉള്ളതാണ് പോവുന്ന വഴിക്ക് പല തടസ്സങ്ങളൊക്കെയുള്ളതാണ് അപ്പോൾ ഫുഡ്ഡും കാര്യങ്ങളും ഒക്കെ കൊടുക്കാനായിട്ട് ഞങ്ങൾക്ക് ഇടയ്ക്ക് നിര്ത്തേണ്ട വരും അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ വണ്ടിക്കാരനെ വിളിച്ച് അന്വേഷിക്കുക എന്തുകൊണ്ടാണ് താമസിക്കുന്നത് ഇതെന്താ ഇങ്ങനെ ഒക്കെ വരുന്നത് എന്ന് അത്പോണക്ക് തന്നെ മുന്നോട്ടുള്ള കാര്യങ്ങൾക്ക് ആണെങ്കിലും ഒരാൾ വണ്ടി ബുക്ക് ചെയ്താൽ നിങ്ങൾ ആ സമയത്തിന് കൊടുക്കുക എന്നുള്ളത് ഒരു പത്ത് മിനിറ്റ് മുമ്പെങ്കിലും അവരുടെ വീട്ടില് ചെല്ലുക എന്നുള്ളത് നിങ്ങളുടെ ഒരു കടമയാണ് നമ്മൾ ഒരു കാര്യം ഏറ്റാൽ അത് ഉത്തരവാദിത്തത്തോടെ ചെയ്യണം ചെയ്യാമെന്ന് ഉണ്ടെങ്കിലേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഏൽക്കാവുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾ വിളിച്ചപ്പഴേ പറയണമായിരുന്നു മേഡം ഞങ്ങൾക്ക് വരാൻ പറ്റത്തില്ല നിങ്ങൾ വേറെ വണ്ടി വിളിച്ചോ എന്ന് പറയണമായിരുന്നു ഇത് നിങ്ങൾ വരാം വരാം ഇന്നലെ വൈകിട്ട് വിളിച്ചപ്പഴും നിങ്ങൾ വരാം വരാമെന്നാണ് നിങ്ങൾ എന്നോട് പറഞ്ഞത് അപ്പം നിങ്ങൾ വരുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങളും ഇത്രയും നേരം നിന്നത് ഈ കൊച്ച് പിള്ളേർക്ക് ഒക്കെ വെളുപ്പിനേ എഴുന്നേൽപ്പിച്ച് ഫുഡ്ഡുംകൊടുത്ത് നിർത്തിയിരിക്കുകയാ കുഞ്ഞുങ്ങളും ഒരുങ്ങി നിൽക്കുകയാ പോവാനായിട്ട് ഇനിയിപ്പം ഞങ്ങൾ നിങ്ങളുടെ വണ്ടി വന്നു അതിൽ കയറി അവിടെ ചെല്ലുമ്പം ഒരു നേരമാവും കൊച്ച് കുഞ്ഞുങ്ങളല്ലേ അത്ങ്ങൾക്കും എന്തെങ്കിലും ഒരു ആവശ്യങ്ങൾ ഒക്കെ കാണത്തില്ലേ പോവുന്ന വഴിക്ക് പുറത്ത് ഇറങ്ങുകയോ ഇടയ്ക്ക് ഇച്ചിരി നേരം നിര്ത്തി എവിടെയെങ്കിലും ഒന്ന് നിര്ത്തുകയോ ചിലപ്പം കൊച്ച് കുഞ്ഞുങ്ങളാവുമ്പം ശര്ദ്ദിലോ എന്തെങ്കിലും ഒക്കെ ഉണ്ടായാൽ അവർക്ക് അതിൻറ്റേതായ കാര്യങ്ങള് മെഡിസിന് കൊടുത്തും ഇതൊക്കെ വേണം ചെയ്യാൻ അപ്പം നിങ്ങളുടെ വണ്ടിയൊരു ഞങ്ങൾ ഒമ്പത് എന്ന് പറഞ്ഞാലും നിങ്ങൾ ഒരു എട്ടര കഴിയുമ്പോഴെങ്കിലും നിങ്ങൾ ഇവിടെ വരേണ്ടതായിരുന്നു ഈ സാധനങ്ങളെല്ലാം വണ്ടിയിൽ പാക്ക് ചെയ്യേണ്ടേ സാധനങ്ങളെല്ലാം വെച്ച് അത് കാരിയര് ഉണ്ടങ്കിൽ കാര്യറിന്റെ മണ്ടയ്ക്ക് വെച്ച് കെട്ടി കാരണം ഞങ്ങൾക്ക് ലഗേജ് ഉണ്ട് കൊച്ച് പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് ലഗേജ് ഒക്കെ ഉള്ളതാ അപ്പം അത് അനുസരിച്ച് സാധനങ്ങളൊക്കെ പായ്ക്ക് ചെയ്ത് കൊണ്ട് പോവേണ്ടത് ഒക്കെയാ അത് നിങ്ങൾ ഇച്ചിരി നേരത്തെ വരിക എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്തമായിരുന്നു നിങ്ങൾ ഇത് വരെ അത് നിര്വഹിച്ചിട്ടില്ല ഇത്രയും ലേയ്റ്റ് ആകുകയും ചെയ്തു പോട്ടെ നേരത്തേ വന്നില്ല എന്നുള്ളത് പോട്ടെ കറക്റ്റ് ടൈമിന് വന്നിരുന്നെങ്കില് അതെങ്കിലും ഉണ്ടാവുമായിരുന്നു ഇപ്പം അതും ഇല്ല അതുകൊണ്ട് ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ വണ്ടി എന്താണ് വരാത്തത് അതിന്റെ ഡീറ്റേയ്ല്സ് എന്നാൽ ഒന്ന് ഞങ്ങളോട് വിളിച്ച് പറയുക ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് വേറെ വണ്ടി ബുക്ക് ചെയ്ത് തരിക നിങ്ങളുടെ വണ്ടിക്ക് വല്ല കമ്പ്ലൈൻറ്റും ആണെങ്കിൽ വേറെ ഒരു വണ്ടി ബുക്ക് ചെയ്ത് തരിക അല്ലെങ്കിൽ നിങ്ങൾ പറയുക ഞങ്ങളുടെ വണ്ടിക്ക് വരാൻ പറ്റത്തില്ല മേഡം ഞാൻ അഡ്വാൻസ്സ് തിരിച്ച് തന്നോളാം എന്ന് ഞങ്ങൾ വേറെ വണ്ടി വിളിച്ച് പൊക്കോളാം എന്തായാലും ഞങ്ങൾക്ക് ഉടനെ തന്നെ നിങ്ങൾ അതിൻ്റെ മറുപടി ഞങ്ങളെ വിളിച്ച് അറിയിച്ചിരിക്കണം